നൃത്താവതരണം എന്ന് പറയുമ്പം അതായത് നമ്മളിങ്ങനെ അതായത് ഒന്നുമില്ലെങ്കിൽ ഈ തിരുവാതിര അങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കും നമ്മൾ അതായത് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സാരിയൊക്കെ ഉടുത്തിട്ട് അവർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ അപ്പോൾ നമ്മളിപ്പം അതായത് നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും അവരെ മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിക്കും നമുക്കിപ്പം സ്റ്റേജിൽ കയറാനില്ലെങ്കിലും സ്റ്റേജിൻ്റെ താഴെ നിന്നിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാമലോ അതേപോലെ അതായത് ബാക്കിയിള്ളവരെ നൃത്തം ചെയ്യാൻ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നൃത്തം ചെയ്യാൻ താല്പര്യം ഉള്ള താല്പര്യം ഉള്ളവരുണ്ടാവും താല്പര്യം ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ താല്പര്യമുളളവരെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ താല്പര്യം ഉള്ളവർ ചിലവർക്ക് പോവാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് സഹായിച്ച് കൊടുക്കുക അവർക്ക് നൃത്തം പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ കയറാൻ മടി അതായത് നൃത്തം അറിഞ്ഞിട്ടും സ്റ്റേജിൽ കയറാൻ മടി ഉള്ള ഒരുപാട് പേരുണ്ടാവും അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക അതായത് അവരെ സ്റ്റേജിൽ കയറ്റാനുള്ള ഒരു ധൈര്യം കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്താൽതന്നെ അത് വലിയൊരു കാര്യമാണ്